ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആദ്യം തന്നെ അതിന് അമ്മയുടെ മുലപ്പാല് തന്നെയാണ് നല്കേണ്ടത് അതുപോലെ തന്നെ കുട്ടി ടെ ഓരോരോ ഘട്ടത്തിന് അതിന്റെ വളര്ച്ചയ്ക്ക് അനുസരിച്ച് ഓരോരോ കാര്യങ്ങള് നമ്മള് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ആറും ആറ് മാസം വരെ നമ്മള് ശരിക്കും അമ്മയുടെ പാല് തന്നെയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എപ്പഴും വളരെ വൃത്തി ഉള്ളതും ആയിട്ടുള്ള നനവൊന്നും പറ്റാതെ വളരെ നല്ല വൃത്തിയായ രീതിയിലാണ് കിടത്തേണ്ടത് അതുപോലെ തന്നെ അത് ശരിക്കും പറഞ്ഞാല് തൊട്ടില് യൂസ് ചെയ്യുന്നത് വളരെ നൽ നല്ലതായിരിക്കും ഇപ്പഴത്തെ കുട്ടികളൊന്നും ശരിക്കും തൊട്ടിലില് കിടത്തി കിടന്ന് വളരാറില്ല എന്നാൽ അങ്ങനെ പണ്ടുകാലത്ത് അങ്ങനെ തൊട്ടിലിലൊക്കെ കിടന്നാണ് വളര്ന്നിരുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മൂന്നു മാസം ഒന്നരമാസം അല്ലെങ്കില് മൂന്നുമാസം ഒക്കെ ആകുമ്പോഴാണ് കറക്റ്റ് അതാത് സമയത്ത് വാക്സിന് എടുക്കേണ്ടതുണ്ട് പിന്നെ ആറു മാസത്തിന് നമ്മള് ചോ അതുവരെ നമ്മള് കുട്ടിക്ക് അമ്മയുടെ പാല് അതുപോലെ തന്നെ കുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടു കൊടുത്തു വരുക ആറു മാസമാകുമ്പോള് അതിന് ചോ ചോറ് കൊടുത്ത് തുടങ്ങും അങ്ങനെ നൂലുകെട്ട് ഇരുപത്തിയെട്ട് ദിവസമാകുമ്പോള് നമ്മള് കുട്ടിക്ക് നൂല് കെട്ടി അതിന് പേരിട്ട് പേരിടല് ചടങ്ങ് നടത്തുന്നു അതുപോലെ തന്നെ പിന്നീട് ഒരു വയസാകുമ്പോള് നമ്മള് അതിന്റെ ബര്ത്ത്ഡേ ഒന്നാമത്തെ വര്ഷം അതിന്റെ ബര്ത്ത്ഡേ ആഘോഷിക്കുന്നു അതൊക്കെ വളരെ ഒന്നാമത്തെ ബര്ത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല രീതിയില് തന്നെ ആഘോഷിക്കാറുണ്ട്